ഇന്നത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളരെയേറെ മെച്ചപ്പെട്ട രീതിയിലാണ് നടക്കുന്നത് പണ്ടത്തെപ്പോലെ എല്ലാ കുട്ടികളെയും ഒരുമിച്ച് ഒരേ രീതിയിൽ പഠിപ്പിക്കാതെ ഓരോ കുട്ടികൾക്കും പഠിക്കാനുള്ള കഴിവും ഐക്യവും ഒക്കെ നോക്കി വ്യക്തി കുട്ടികളെ അവരവരുടെ കഴിവിനനുസരിച്ച് വളർത്തിക്കൊണ്ടുവരുവാൻ ഇന്നത്തെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് സാധിക്കുന്നുണ്ട്